നമസ്ക്കാരം ഞാൻ നിങ്ങളുടെ റസ്റ്റോറൻ്റിലേക്ക് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് ചൂടോടെ കഴിക്കാനാണ് ആഗ്രഹം അപ്പം അതിന് വേണ്ടി എന്തെങ്കിലും സജ്ജീകരണം ചെയ്തു തരണം ഈ ദൂരക്കൂടുതൽ ഒത്തിരി ദൂരമായത് കൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് നല്ല നല്ലതായ ഒരു ചൂടോടെ കഴിക്കാനാണ് താൽപ്പര്യം എനിക്കും എൻ്റെ ഫാമിലിക്കും ചൂടോടെ കഴിക്കാനാണ് താൽപ്പര്യം അപ്പം അതിന് വേണ്ടി എന്തെങ്കിലും കണ്ടൈനറുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ യൂസ് ചെയ്തു നല്ല പാക്കിംഗ് ആയി ഞങ്ങൾക്ക് റസ്റ്റോറൻ്റിലേക്ക് ഫുഡ് വീട്ടിലേക്ക് റസ്റ്റോറൻ്റിൽ നിന്ന് വീട്ടിലേക്ക് ഹോം ഡെലിവറി ചെയ്യേണ്ടതാണ് ആ അപ്പോൾ ഞങ്ങൾക്ക് ചൂടോടെ തന്നെ വേണം ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ആണ് അത് ചൂടോടെ കഴിക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യം അതുകൊണ്ടാണ് അത് ചൂടോടെ തരാൻ പറയുന്നത് ഈ ദൂരത്തിൻ്റെ ഇത് കൊണ്ട് നല്ല പാക്കിങ്ങ് ഒക്കെ വേണം നിങ്ങടെ റസ്റ്റോറൻ്റിനെ ഞങ്ങൾ ഭയങ്കരമായി വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്